ചെറുപ്പം മുതലേ എൻ്റെ അമ്മയുടെ ആങ്ങളമാർ അനിയത്തിയും ഒക്കെ തയ്ക്കുന്നത് ഞാൻ വളരെ ആകാംക്ഷയോടെ നോക്കി നിന്നിട്ടുണ്ട് അന്ന് മുതലേ എൻ്റെ വലിയ ഒരു ആഗ്രഹമായിരുന്നു എന്തെങ്കിലും മനസ്സിലാകുന്ന വിധത്തിൽ എന്തേലുമൊരു തയ്യലിൻ്റെ ഇത് പഠിക്കണമെന്ന് അങ്ങനെ വലിയൊരു പ്രചോദനം ഏറ്റെടുത്ത് അത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ തയ്ക്കുവാൻ പഠിച്ചു ആദ്യമാദ്യമൊക്കെ മിഷ്യൻ ഇല്ലാതെ പഴയ നൈറ്റിയുടെ തുണികളും ചെറിയ തുണികളൊക്കെ കിട്ടുമ്പോൾ അത് അറിയാവുന്ന രീതിയിലൊക്കെ കട്ട് ചെയ്ത് ഒഫീഷ്യലായിട്ടല്ല അറിയാവുന്ന രീതിയിലൊക്കെ കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ മിഡിയ് ടോപ്പ്കൾ അങ്ങനെ പാൻറ്റ് അങ്ങനെയൊക്കെ അത്യാവശ്യം കയ്യ് സൂചിയും നൂലും വെച്ചിട്ട് കൈ കൊണ്ട് തയ്ക്കാറുണ്ടായിരുന്നു പിന്നെ പിന്നെ അതിനോട് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ട് ഒത്തിരി ഒത്തിരി ഇഷ്ടമായിരുന്നു തയ്യലിനോട് അങ്ങനെ തയ്ക്കാനായിട്ട് അങ്ങനെ തോന്നീട്ട് എൻ്റെ ചേച്ചീടെ അടുക്കത്തന്നെ പോയി മിഷ്യനെ വെറുതേ ഇരുന്നിരുന്ന് ചവിട്ടി ചവിട്ടി ഒരു കാൽ ഒരു ഇച്ചിരി വഴങ്ങുന്ന വിധം ഒന്ന് ചവിട്ടും അന്നല്ലാതെ അപ്പോഴും അറിയില്ലായിരുന്നു പിന്നെ പിന്നെ ഞാൻ പഴയ കഷ്ണം തുണികൊണ്ട് ഇങ്ങനെ അറ്റങ്ങൾ ഒന്ന് പതിച്ചടിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ച് അതും കറക്റ്റ് നേരെ വരുന്നത് വളഞ്ഞ് പോകാതെ നേരെ വരുന്ന രീതിയിൽ അടിക്കാനായിട്ട് ഒക്കെ നോക്കിയിരുന്നു അപ്പം എത്രയോ വിധം ശരിയാകുമോ അത്രയും വിധം നല്ലതായിട്ട് തുന്നണമെന്നായിരുന്നുഎൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം അതു പോലെയായിരുന്നു അതുപോലെ തന്നെ ഇപ്പോഴും നന്നായിട്ട് അത് ശരിയായില്ലെങ്കിൽ അഴിച്ച് രണ്ടാമത് തയ്ക്കുമായിരുന്നു രണ്ടാമത് ഒന്നും കൂടി തയ്ക്കും അതെത്ര തവണ തെറ്റിയാൽ അത്രോം തവണ അഴിച്ചിട്ട് തയ്ക്കുമായിരുന്നു അത് നമ്മുടെ ശരീരത്തെ എത്ര വേദനകളതിൻ്റെ ഇങ്ങനെ ഇരിക്കുമ്പോഴുണ്ടായാലും അതെത്ര നേരം ഇരുന്നായാലും അതഴിച്ചിട്ട് പിന്നെയും തയ്ക്കുമായിരുന്നു ആദ്യമാദ്യമക്കെ ഭയങ്കര ദേഷ്യം അങ്ങനൊക്കെ വരുമായിരുന്നു പക്ഷേ അതിൽക്കൂടെ ഒത്തിരി ക്ഷമ തയ്യൽ ന് ഒരു തയ്ക്കാനായിട്ട് ഒത്തിരി ക്ഷമ വേണമെന്ന് ഉള്ള ഒരു കാര്യം ഉറപ്പായി നമ്മൾക്ക് അതിനോടൊരു താൽപ്പര്യം ഇപ്പം ഒരു ചുരിദാറോ അല്ലെങ്കിലൊരു നൈറ്റിയോ തയ്ക്കാൻ ഇരുന്നാൽ തയ്ക്കാനിരുന്നാലത് തയ്ച്ച് തീരാതെ തന്നെ എന്തെങ്കിലുമൊരു പ്രശ്നങ്ങൾ നമുക്ക് തോന്നി അല്ലേൽ എന്തേലും ഒരു മനാ ഇത് തോന്നിയാൽ അന്നേരം തന്നത് നിർത്തിയിട്ട് എഴുന്നേൽക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ അതെത്ര തയ്ച്ചാലും നമ്മളുടെ മൈൻറ്റ് ശരിയല്ലെങ്കിൽ അതെത്ര തയ്ച്ചാലും ശരിയാകത്തില്ല അപ്പം അതുവോണക്ക് കുറെ നേരം ചിലവഴിച്ചിട്ട് ഇരുന്നിട്ട് ഞാൻ തയ്ച്ചിട്ടുണ്ട് ആദ്യമാദ്യമൊക്കെ എനിക്ക് അളവുകളും കാര്യങ്ങളും കൃത്യമായിട്ട് എടുക്കാനറിയാത്തത് കൊണ്ട് മറ്റ് ആർട്ട് പേപ്പറിൻ്റകത്ത് എന്നെ എൻ്റെ ചേച്ചിയെക്കൊണ്ട് അളവുകൾ വെട്ടിച്ചിട്ട് ആ ചാർട്ട് പേപ്പറ് വില കുറഞ്ഞ തുണി വാങ്ങിച്ചിട്ട് അതിൻ്റകത്ത് വെച്ച് അതിൻ്റെ സൈഡീക്കൂടെ വെട്ടിയെടുത്തിട്ട് അങ്ങനെയായിരുന്നു തയ്ച്ചിരുന്നത് പിന്നെ ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തയ്ച്ച് പുറത്ത് കൊടുക്കാറുണ്ട് എൻ്റെ ആവശ്യങ്ങൾക്ക് തയ്ച്ചിടാറുണ്ട് എന്നാൽ നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അത് ചെയ്ത് തൈച്ചിടുമ്പോൾ നമ്മൾക്ക് ഒരു പ്രത്യേക ഒരു ആത്മ സംതൃപ്തിയാണ് രണ്ട് പേർ കാണുമ്പോൾ അല്ലേ മറ്റുള്ളവർ കണ്ടിട്ട് നമ്മളോട് പറയും നീ തയ്ച്ചതാണോ അതെങ്കിൽ ചെയ്തതാണോ നല്ല ഇതാ ഒത്തിട്ടുണ്ടെന്ന് പറയുമ്പം നമുക്ക് വല്ലാത്ത ഒരു ആത്മ സംതൃപ്തിയാണ് എനിക്ക് എത്ര വീട്ട്കളിൽ എത്ര ജോലി ഉണ്ടെങ്കിലും എന്നാ ജോലി ഉണ്ടെങ്കിലും നമ്മൾക് ആ ഇതെല്ലാം കൃത്യ സമയത്ത് തന്നെ ചെയ്ത് തീർത്തിട്ട് തയ്യലിന് സമയം കണ്ടെത്താറുണ്ട് അത് വലിയൊരു മറ്റുള്ളവർ തയ്ക്കുന്ന കാണുമ്പോൾ അല്ലേ മറ്റുള്ളവർ സൂചിയും നൂലും കൊണ്ട് ഞാൻ നേരത്തെ ചെയ്തിരുന്നത് പോലെ തയ്ക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു പ്രചോദനമാണ് എനിക്കും തയ്ക്കണം എനിക്കും നല്ല ഒരു ഇതാവണം എവിടെങ്കിലും എത്തണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കും തോന്നിയിട്ടുണ്ട് അത്യാവശ്യം നല്ല സാമ്പത്തികമായിട്ടും നല്ല ഒരിതിൽ ഇതാണ് അതിൽ നിന്നും ലഭിക്കുന്നത് ഇ നേരെ പണ്ട് മൊ പണ്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞ പോലല്ല ഇപ്പോഴത്തെ ആൾക്കാർ കൂടുതലും തുണി എടുത്ത് നമ്മുടെ ശരീരത്തിന് പാകമാകുന്ന വിധം തയ്ച്ച് റെഡി മേയ്ഡിനേക്കാട്ടിലും കൂടുതൽ തയ്ച്ചു ഉപയോഗിക്കാനാണ് എല്ലാവരും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അതിന് വേണ്ടി അവർ എത്ര പൈസ ചിലവാക്കാനും അവർക്ക് മടിയില്ല അത്യാവശ്യം നല്ല രീതിയിൽ തയ്ച്ചും ഇതും ഇത് ചെയ്താണ് ഞാൻ മുന്നോട്ട് എൻ്റെ തയ്യലിൻറ്റേത് കൊണ്ടു പോകുന്നത് പിന്നെ എന്തെങ്കിലും ഇതോ ഉണ്ടോന്ന് ചോദിച്ചാൽ കുറെ കാര്യങ്ങൾ എല്ലാം ഇതിൻ്റകത്തൂന്ന് ഉണ്ട് പക്ഷേ എനിക്കതിപ്പം നന്നായിട്ട് ഓർക്കാൻ പറ്റുന്നില്ല അത്യാവശ്യം കുറെ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട്